ഇപ്പോൾ ട്രക്കിങ്ങിന് ഇടയിൽ നല്ല രീതിയിലുള്ള വെല്ലുവിളിയും കാര്യങ്ങളൊക്കേ ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായിട്ടും ട്രക്കിങ് പോകുന്നത് ഈ മലയോര പ്രദേശങ്ങളിലേക്കാണ് അപ്പോൾ അവിടെ കൂടുതലായിട്ടും കാടുകൾ ഉള്ള ഒരു പ്രദേശങ്ങളായിരിക്കും അപ്പം അവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മഞ്ഞ് കാര്യങ്ങളൊക്കേ ഉള്ളതു കൊണ്ട് നമുക്ക് പുറമെ നിന്നുള്ള കാഴ്ചകളൊക്കേ ചിലപ്പോൾ വിസിബിൾ ആയിരിക്കണമെന്നില്ലാ അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് ഒരു കടുവയോ അതായത് ഇപ്പോൾ ഒരു ആനയോ വന്നു കഴിഞ്ഞാൽ പോലും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതായത് നമ്മളിങ്ങനെ നടന്ന് ട്രക്കിങ്ങിന് കയറികൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ആന വന്ന് ഫ്രണ്ടിൽ നിന്നിട്ട് നമുക്ക് അത് കാ കാണാൻ പറ്റാത്തൊരു അവസ്ഥയായിട്ടുണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ നമ്മൾ ഞെട്ടുകയും കാര്യങ്ങളൊക്കേ ഉണ്ടായിരുന്നു പിന്നേയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ബെക്കോട്ട് ഓടി പക്ഷേ ആനയൊന്നും ചെയ്തിട്ടൊന്നുമില്ലാ അപ്പോൾ അത് നമുക്ക് പേ പേടി പെടുത്തുന്ന ഒരു രീതിയിൽ ഉണ്ടായ ഒരു എന്താ പറയുക നമുക്ക് മാനസികമായിട്ട് പെട്ടെന്ന് ഞെട്ടി കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കേ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെയുള്ള ട്രെക്കിങ് കാര്യങ്ങളൊക്കേ പോകാനൊക്കെ മടിയായിരുന്നു കാരണം പേടിയായിട്ട് അപ്പോൾ അത് നമുക്ക് മാനസികമായിട്ട് നല്ല രീതിയിൽ തളർന്നിട്ടുണ്ടായിരുന്നു